അങ്ങനെ സഞ്ചരികളുമായിട്ട് ഇടപഴകുന്നത് വളരെ വളരെ നല്ല കാര്യം ആണ് കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് കുറേ അറിവുകള് കിട്ടും കാരണം നമ്മളിപ്പൊ എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും പോകണം എന്നില്ല പക്ഷേ കുറേ സ്ഥലങ്ങളിൽ പോയ ആൾക്കാരൊക്കെയായിട്ട് നമുക്ക് പരിചയമായിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ള അറിവുകള് നേടാൻ കഴിയും എന്താച്ചാ അവിടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും എന്തൊക്കെ അവിടെ കാണാൻ ഉണ്ടാവുക അവിടത്തെ ആൾക്കാരെങ്ങനെയാണ് അവിടെത്തെ ആൾക്കാരുടെ പെരുമാറ്റം എന്താണ് അവിടുത്തെ ഭാഷ എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരം എന്താണ് ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇതുപോലത്തെ വിനോദസഞ്ചാരികളുമായിട്ട് നമുക്ക് ഇടപഴകി വരുന്നത് എത്ര നല്ലതാണ് കാരണം എന്താച്ചാ ഇപ്പോൾ നമുക്കുള്ള അറിവുകൾ അവർക്കും പകർന്നുകൊടുക്കുക അത് അവർക്കൊരുപകാരമാകും അതുപോലെ നമുക്ക് നമുക്കും ഒരു ഉപകാരമാകും കിട്ടാത്ത കുറേ അറിവുകൾ നമുക്ക് കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളിൽ വിനോദ സഞ്ചാരികളുമായിട്ട് നമ്മൾ ഇടപഴകുന്നത് എത്രയോ നല്ലതാണ് സോ നമുക്ക് എന്താ പറയുക വിനോദ സഞ്ചാരികളുമായിട്ടിങ്ങനെ അവരുമായിട്ട് കൂടി ഇടപഴകുമ്പോൾ എപ്പോഴും നല്ല നല്ല എന്താ പറയുക നല്ല നല്ല അറിവുകൾ കിട്ടാറുള്ളൂ അറിയാത്ത കുറേ അറിവുകൾ ഇനിയും നമ്മള് അറിയാൻ കുറേ അറിവുകൾ ബാക്കി ഉണ്ട് അപ്പോൾ എന്താ പറയുക സെർച്ച് ചെയ്താൽ പോലും കുറേ കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളു ആളുകളുടെ അടുത്ത് നിന്നു കിട്ടും കാരണം അവര് കുറേ കാര്യങ്ങൾ ആഴ്ന്നിറങ്ങി ചിന്തിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ നടക്കുന്ന ആൾക്കാരാണ് അവര് പോകാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കിനങ്ങനെ കുറേ അറിവുകൾ കിട്ടും